സ്റ്റാമ്പുകൾ നാണയങ്ങൾ കല്ലുകളൊക്കെ ആണെങ്കിലും ഒരുപാട് പലതരത്തിലുള്ള നമുക്ക് കാണാൻ പറ്റും അപ്പം അത് ശേഖരിച്ചു വെക്കുക ഇപ്പോൾ പണ്ടുകാല പണ്ടുകാലത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാല കാലഘട്ടത്തിൽ ഈ ഇങ്ങനത്തെ അസൈൻമെൻറ്റുകൾ അല്ലെങ്കിൽ കളക്ഷൻ ബുക്കുകളൊക്കെ ഉണ്ട് അപ്പം അത് നമുക്ക് പലതരത്തിലുള്ള സ്റ്റാമ്പുകള് പലസ്ഥലത്തെ സ്റ്റാമ്പുകൾ നമുക്ക് കളക് കളക്ട് ചെയ്യാം ഇപ്പം ഇന്നത്തെ കാലത്തെന്നു വെച്ചാൽ നമുക്ക് എല്ലാത്തിനും പാടാ അതായത് ഒർജിനൽ അല്ലാത്ത പിക്ച്ചേഴ്സ് അവൈലബിളാ എല്ലാത്തിൻ്റെയും പിക്ച്ചേഴ്സ് അവൈലബിളാ അപ്പോൾ അത് സ്റ്റിക് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇന്നത്തെ കാലത്താണെങ്കിൽ എല്ലാം എല്ലാ നല്ല ടെക്നോളജി നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് ഏത് ഇപ്പം നമുക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ എല്ലാം പല സ്ഥലത്തെ പല രാജ് പല രീതിക്ക് പണ്ട് പല ടൈമിൽ യൂസ് ചെയ്ത സാധനങ്ങൾ നമുക്ക് പടമായിട്ട് കിട്ടും ഫോട്ടോ പക്ഷെ പണ്ടു കാലത്ത് നമ്മൾ സ്കൂൾ ലൈഫുകളിൽ നമ്മളിതെല്ലാം സെർച്ച് ചെയ്ത് തപ്പി കണ്ടുപിടിച്ച് ഒട്ടിച്ച് ഇപ്പോൾ നാണയമാണെങ്കിലോ അല്ലെങ്കിൽ എന്ത് തന്നെ ആണേലും പലതരത്തിലുള്ള ഇലകൾ പലതരത്തിലുള്ള നാണയങ്ങൾ സ്റ്റാമ്പുകൾ കല്ലുകൾ അതൊക്കെ നമ്മൾ ഒട്ടിച്ച് വെക്കുകയെന്നു വെച്ചാൽ അതാ ഏറ്റവും അത് മീൻസ് പിന്നീട് നോക്കുമ്പോൾ അതൊക്കെ നമുക്ക് കണ്ടറിഞ്ഞു തൊട്ടറിഞ്ഞു മനസിലാക്കാൻ പറ്റും അതിൻ്റെ ഒരു വിദ്യാഭ്യാസമൂല്യം നമുക്കറിയാൻ പറ്റും പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ അല്ലെന്നല്ല പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് ആ തൊട്ടറിഞ്ഞ് ഓരോന്നിനേയും ഫീൽ ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് ഇപ്പോൾ എല്ലാം കയ്യെത്തും ദൂരത്തു അവൈലബിളായതുകൊണ്ട് നമുക്കെല്ലാം ജസ്റ്റ് പിക്ച്ചേഴ്സ് ആയിട്ട് നമുക്ക് മനസ്സിലിങ്ങനെ കാണാൻ പറ്റും പിന്നെ ഇപ്പോൾ അങ്ങനെ ആണെങ്കിലും പണ്ടുകാലത്തുള്ളതും രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അപ്പം അതൊക്കെ ഇന്നത്തെ കാലത്ത് അതൊന്നും ഇതല്ല പ്രാവർത്തികം അല്ല എന്ത് തന്നെ ആണെങ്കിലും വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്ക് പഠിക്കാനും ഉണ്ട് അതുപോലെ അറിവുനേടാനും ഉണ്ട് അപ്പം രണ്ടു രീതിയിലും ഒരുപാട് ഇമ്പോർട്ടൻസ് തന്നെയാണ് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങള് പണ്ട് പണ്ടുകാലത്ത് യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പം ഇപ്പം നമ്മൾ കണ്ടറിഞ്ഞ് ശേഖരിച്ച് അതൊക്കെ അതിൻ്റെ മൂല്യം എന്നു വെച്ചാൽ വളരെ വലുതാണ് കാരണം അതൊന്നും ഇപ്പം കിട്ടാനില്ലാത്തതും കാണാനില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ചിലയിടത് മ്യൂസിയത്തിലാണെങ്കിലു മൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പല സ്ഥലത്ത് യൂസ് ചെയതുകൊണ്ടിരുന്ന സാധനങ്ങൾ അപ്പം അതെല്ലാം കാണുക കാണാൻ പോവുക ശേഖരിക്കുക വിദ്യാഭ്യാസപരമായിട്ടും അല്ലാതെയും നമുക്ക് ഒരുപാട് അറിവ് നേടി തരുന്ന സാധനങ്ങളാണ്